ഞാൻ ആദ്യമായിട്ട് മേണിച്ച പ്രൊഡക്ട് എന്ന് പറയുന്നത് മാമാ എർത്തിൻ്റെ ആപ്പിൾ ഫേസ് വാഷാണ് ആപ്പിൾ ഫേസ് വാഷ് ഞാൻ ഞാൻ റിവ്യൂ ഒന്നും നോക്കാതെ ഞാൻ പോയത് ഞാൻ ജസ്റ്റ് ഒരു ഫേസ് വാഷ് വേണം മുഖത്തിന് ആവശ്യമാണെന്ന് വെച്ചിട്ട് ഞാൻ പോയത് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് വാങ്ങി അവിടെ ലാസ്റ്റ് സ്റ്റോക്കാണ് ഉണ്ടായത് അപ്പോൾ അത് വാങ്ങി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിറ്റ ഫസ്റ്റ് മേണിച്ച അന്നുതന്നെ ഞാൻ എന്നിട്ട് റിവ്യൂ നോക്കി റിവ്യൂ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഉള്ള റിവ്യൂ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പോസിറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ആ ഞാൻ ആയിട്ട് വാങ്ങിയൊരു പ്രൊഡക്റ്റ് എനിക്ക് ഉപകാരപ്പെടുമെന്നുള്ളൊരു ഇത് എനിക്കുണ്ടായി പിന്നെ ഞാൻ ഇതിനു മുൻപ് യൂസ് ചെയ്തത് മറ്റേ വേറെ വേറെ ഓരോ പ്രൊഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തു എൻ്റെ മുഖത്തിനത് പറ്റുന്നുണ്ടായ്റ്റ കാരണം പിമ്പിൾസെല്ലാം വന്ന് കുറേ കുറേ പ്രശ്നമുണ്ടായിന് മീട്ടത്തെല്ലാം അപ്പോൾ അങ്ങനെ ഞാൻ സഹികെട്ടാണ് ഞാനൊരു ഒരു വേറൊരു ആദ്യം ഒരു ഫേസ് വാഷ് വാങ്ങിയത് കാരണം വാങ്ങണമെന്ന് ഉണ്ടായിട്ടില്ല എന്നാലും നമുക്ക് ആവശ്യമാണല്ലോ മുഖത്ത് അപ്പം ഞാൻ വാങ്ങി ആ അത് വാങ്ങി ഫസ്റ്റ് ഡേ യൂസ് ചെയ്ത സമയത്ത് കുറച്ച് പിമ്പിൾസ് വന്നു എന്ന് വച്ചാൽ ആദ്യമായിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത് കാരണം കുറേ പ്രോഡക്റ്റ് മാറി മാറി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസമാകുമ്പോൾ ചെറിയൊരു പിമ്പിൽസ് അങ്ങനെ അത്ര വല്യതൊന്നുമല്ല കുറച്ച് പിമ്പിൽസ് വന്നു അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണല്ലോ ഉണ്ടായത് ഓയിലി സ്കിന്നെന്നു പറയുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സമയം പുറത്ത് പോയി കഴിയുമ്പം തന്നെ ഇങ്ങനെ എണ്ണയെല്ലാം വന്ന് മുഖത്ത് മൊത്തം പ്രശ്നമാണ് ഉണ്ടായത് സോ അതുകൊണ്ടാണ് എനിക്കത്ര പിമ്പിൾസ് ഉണ്ടാവാൻ കാരണമുണ്ടായത് അപ്പോൾ ഫേസ് വാഷ് ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ഒരു മാറ്റം നമുക്ക് ആ മുഖത്ത് തോന്നി കാരണം അത് യൂസ് ചെയ്ത അപ്പം തന്നെ നമ്മുടെ മുഖത്തിൽ ഓയില് എക്സ്സ് ഓയിലിനെ അത് വെലിച്ചെടുത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അപ്പോൾ അങ്ങനെ ഞാൻ ഡെയിലി അത് യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു ഒരാഴ്ച് അത് യൂസ് ചെയ്തപ്പം തന്നെ എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാരണം അത്രയും എൻ്റെ മുഖത്തിലത്തെ ഓയിൽ എല്ലാം അത് എക്സ്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം അത് വലിച്ചെടുത്തിട്ട് നല്ല ഒരു ഒരു ഗ്ലോ എനിക്ക് തരുന്നുണ്ടായിനി അപ്പോൾ പിമ്പിൾസെല്ലാം കുറേ കുറഞ്ഞു പിമ്പിൾസും കുറഞ്ഞു അതിൻ്റെ കലയെല്ലാമുണ്ടായത് അതും പോയി കിട്ടി പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റിനെ കാണുന്നത് അപ്പോൾ ഒന്ന് തീർന്ന് കഴിയുന്നതിന് മുന്നേ ഞാൻ അടുത്ത പ്രൊഡക്റ്റ് ആദ്യം വാങ്ങീന് ഇതിൻ്റെ തന്നെ മാമാ എർത്തിൻ്റെ ആപ്പിൾ ഫേസ് വാഷ് തന്നെ വാങ്ങിയത് വൺ ഓഫ് ദ ബെസ്റ്റെന്ന് ഞാൻ പറയും കാരണം അത്രയും പോസിറ്റീവായിട്ട് എനിക്കത് ഉണ്ടായിട്ടുണ്ട് ആ ആദ്യമായിട്ട് ഇത് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് തന്നെ ഫേസ് വാഷ് ഞാൻ അങ്ങനെ വാങ്ങാറില്ല ഞാൻ കാരണം ഇത് യൂസ് ചെയ്ത അതൊന്നും എനിക്ക് അത്ര പോസിറ്റീവായിട്ട് വന്നിട്ടില്ല ഭയങ്കര നെഗറ്റീവായിട്ടാ വന്നിട്ടുള്ളത് കാരണം കുറേ ഭയങ്കര വേദനയുള്ള കുറേ കുരുവെല്ലാം മുഖത്ത് വന്നിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായിന് അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ് ഈ പ്രോഡക്റ്റ് വേറെ പ്രോഡക്റ്റെല്ലാം വാങ്ങി യൂസ് ചെയ്ത് നിർത്തിയതാണ് പക്ഷേ അത്രയും ഇത് സഹികെട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ വന്നത് ഈ സമയത്താ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത് ഒക്കെ മാമാ എർത്തിൻ്റെ ആപ്പിൾ ഫേസ് വാഷ് പിന്നെ ഞാൻ പോയി നോക്കുമ്പോൾ എനിക്കാ ഇത് കിട്ടീട്ടുണ്ടായിറ്റ ഞാൻ കടയിൽ പോയി നോക്കുമ്പോൾ എനിക്ക് ആ പ്രോഡക്റ്റ് കിട്ടീട്ടുണ്ടായിറ്റ പക്ഷേ ഞാൻ എന്താക്കിയത് വെച്ചാൽ ഞാൻ ആമസോണിലത് വാങ്ങി എന്തായാലും ഞാൻ വേറൊരു പ്രൊഡക്റ്റ് ഞാൻ നോക്കാൻ പോകുന്നില്ല എന്തായാലും ആ പ്രോഡക്റ്റ് തന്നെ കണ്ടിന്യൂസായിട്ട് യൂസ് ചെയ്യാനാണ് പോകുന്നത് കാരണം എൻ്റെ വേറൊരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് ഇതിനെക്കാളും നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പം ഞാൻ ഇപ്പോൾ ഈ ആപ്പിൾ ഫേസ് വാഷിനെ കണ്ടിന്യൂസായിട്ട് നോക്കാൻ പോകുന്നു എല്ലാവർക്കും ഞാൻ റെക്കമെന്റ് ചെയ്യും ഈ ഓയിലി സ്കിന്നുള്ളവർക്കും മുഖത്ത് കുറേ പിമ്പിൾസ് ഉള്ളവർക്കും എല്ലാം ഞാൻ റെക്കമെന്റ് ചെയ്യുന്നൊരു ഫേസ് വാഷാണ് ആപ്പിൾ ഫേസ് വാഷ് മാമാ എർത്തിൻ്റെ ആപ്പിൾ ഫേസ് വാഷ് പിന്നെ വേറെ പ്രൊഡക്റ്റൊന്നും ട്രൈ ചെയ്യാതെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കൺട്രോളിങ്ങാണത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ ഓയിൽ സികിന്നെന്ന് പറയുന്നൊരു ഇത് മാറി നമുക്ക് പുതിയൊരു ഗ്ലോ തരുന്ന തരുന്നുണ്ടത് പിന്നെ അതിൽ അതിലുള്ള കെമിക്കൽസ് കെമിക്കൽസല്ല അതിൽ പോസിറ്റീവായിട്ടുള്ള കെമിക്കൽസേ ഉള്ളൂ കാരണം മുഖത്തിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് മാത്രമേ ഉള്ളൂ നല്ല സ്മെല്ലാണതിന് അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ ആ ആ ഒരു പ്രോഡക്റ്റിനെ എല്ലാർക്കും റെക്കമെന്റ് ചെയ്യുന്നുണ്ട് സോ